ഞാൻ ഈ തരത്തിൽ ഞാൻ കുഞ്ഞായിരുന്നു അപ്പോൾ സ്പ്രിൻർ റണ്ണിങ്ങിൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് സ്കൂളിൽ അന്ന് ഒന്ന് കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് അത് നമുക്ക് ഒരു ആ ഒരു പ്രായത്തിൻ്റെ ആവേശത്തിലും ഇതിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള സ്പ്രിൻറ്റിലെ ഈ ഇനിയും പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ആരോഗ്യം ഇതൊക്കെ വേണം ഇങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പം അതിപ്പോൾ അത്രയൊന്നും ഇതില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ നോർമൽ ആയിട്ട് മോർണിങ്ങിൽ റണ് ഞാൻ ചെയ്യാറ് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് കിലോമീറ്റർ ഒക്കെ പതുക്കെ റണ് ചെയ്യാൻ കുറേ കുറച്ച് വാക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ ഉപകാരമുള്ള കാര്യമാണ് ഈ ഓട്ടമെന്ന് പറയുമെന്നുള്ളത് ഓട്ടമെന്ന് പറയുന്ന സാധനം നമ്മൾ എപ്പോഴും ഫിറ്റ് ആകാനും ആരോഗ്യമൊക്കെ സംരക്ഷിച്ച് നിർത്താനൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന സാധനമാണ് നമുക്ക് ഓട്ടമെന്ന് പറയുന്നത് നമ്മുടെ ഓരോ പേശികളും ഓരോ കണുപ്പുകളും ചലിച്ചോണ്ടിരിക്കുകയാണ് ശരീരം മുഴുവൻ ചലിക്കുകയാണ് ഓടുമ്പോൾ ഓടുമ്പം ചലിക്കാത്ത ഏത് ശരീര ഭാഗമാണുള്ളത് ഒന്നില്ല മൊത്തത്തിൽ അങ്ങനെ ചലിച്ചോണ്ടിരിക്കുകയാണ് അതും അങ്ങനെ കണ്ടിന്യൂ ത ചലിക്കുക എന്നുള്ളത് അപ്പം അതിനെ ആരോഗ്യപരമായി നിർത്താം എന്നുള്ള ഒരു വലിയ ധർമ്മം ഇവിടെ നിർവഹിക്കുന്നുണ്ട് നമ്മൾ ഓടുമ്പോൾ ഇത് ഓരോന്നും വർക്ക് ചെയ്യണം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് അനങ്ങിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു മെഷീൻ എന്താ ചെയ്യാം മെഷീനൊക്കെ കുറേ കേടൊന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീസ് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാറുണ്ട് ഇല്ലേ ഇപ്പോൾ ഒരു സൈക്കിൾ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചങ്ങലയിലൊക്കെ ഗലീസ് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കറക്കി കൊടുക്കാറുണ്ട് ഇതേ പരിപാടിയാണ് നമ്മൾ ശരീരം ഒരു എഞ്ജിൻ ആണല്ലോ ആ എഞ്ചിന് വർക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ഈ റണ്ണിങ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഓടി കഴിയുമ്പോൾ നമ്മളൊന്നും കൂടി ഒന്ന് എനർജെറ്റിക്ക് ആകും നമ്മുടെ ശരീരമൊക്കെ ഒന്നും കൂടി ഫിറ്റ് ആകും ഒന്നും കൂടി ഹെൽത്തി ആകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഓട്ടം വളരെ ഇമ്പോർട്ടൻറ്റ് ആണെന്ന് എനിക്ക് അറിയാം അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന് അനുസരിച്ച് ഇതുപോലുള്ള കുന്ന് ചരിവിലൂടെ വനത്തിലൂടെ ഒക്കെയുള്ള ഓട്ടം എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷേ സമയമാണ് പ്രശ്നം ഈ കാലത്ത് എല്ലാവരുടെയും പോലെ തന്നെ എനിക്ക് അത്ര സമയം ഒഴിവില്ല ഞാൻ ഒരു ഫുൾ ടൈം സ്റ്റുഡൻറാണ് അതുകൊണ്ട് തന്നെ ഒഴിവില്ല ആ ഒരു ഒഴിവില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ചെയ്യാതിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഓരോ യുവൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ റിട്ടയർമെൻ് ഒക്കെ ആകുന്ന സമയത്ത് ഈ തീർച്ചയായിട്ടം അത് ചെയ്യണം തന്നെയാണ് ആഗ്രഹം കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അത് ഹെൽത്ത് ആയിട്ട് നമ്മൾ അപ്പം ആയിട്ട് അത്ര നേരം അത് എത്രത്തോളം നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട് നമ്മൾ ശരീരത്തിന് എത്രത്തോളം അത് ഗുണം ചെയ്യുന്നുണ്ട് എന്ന് എല്ലാവരും അതുപോലെ ശരീരത്തിന് മാത്രമല്ല മെ്റൽ ഹെൽത്ത് നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് റെഡി ആയാലും മെൻറൽ ഹെൽത്ത് റെഡി ആകുകയുള്ളൂ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലാതെ വെറുതെ മെന്റൽ ഹെൽത്ത് റെഡിയാകുന്നില്ല ഫിസിക്കൽ ഹെൽത്ത് റെഡി ആണോ എന്നാകുമ്പം ഹെൽത്ത് റെഡി ആകും അങ്ങനെ ഫിസിക്കൽ ഹെൽത്ത് ഏറ്റവും നന്നായിട്ട് മെയിൻറയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നന്നായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് റണ്ണിംങ് അപ്പം അതിലൂടെ നമ്മൾ അത് ചെയ്യുമ്പോൾ സ്വഭാവികമായിട്ട് നമ്മുടെ മെൻറൽ ഹെൽത്തും വർദ്ധിക്കും അപ്പോൾ എല്ലാ തരത്തിലും വളരെ വലിയ ഉപകാരമാണ് നമ്മൾ ഇത്തരത്തിലുള്ള റണ്ണിങ് ഒക്കെ നമുക്ക് ചെയ്യുന്നത് അപ്പം തീർച്ച കിട്ടും അത് ചെയ്യണം തന്നെയാണ് ആഗ്രഹം